ഞാൻ നടത്തിയിട്ടുള്ള യാത്രകളിൽ പലതും ചിലവ് കുറഞ്ഞ യാത്രകളായിരുന്നു ഹോസ്റ്റലിൻ്റെയും ഹോസ്റ്റൽ ഫീയുടെയും ഫുഡിൻ്റെയും മെസ്സ് ഫീയും അതിൽ നിന്ന് മിച്ചം പിടിച്ചു കൊണ്ടുള്ളതായിരുന്നു എൻ്റെ യാത്രകളിൽ മിക്കതും അതിൽ തന്നെ എടുത്ത് പറയേണ്ടത് ഗോവയിലേക്ക് പോയ ഒരു യാത്രയായിരുന്നു പെട്ടെന്നൊരു ദിവസം യാത്ര ചെയ്യാൻ തോന്നിയത് അത് ഗോവയിലെക്കായിരുന്നു ഒരു വൈകുന്നേരം ട്രെയിനിൽ പോകാൻ തോന്നി അങ്ങനെ ട്രെയിനിൽ പോയി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടെ നിന്ന് എവിടെത്തേക്കാണ് പോകേണ്ടതെന്ന് തീരുമാനിച്ചു അങ്ങനെ നേരെ ഗോവയിലേക്ക് വിടണെ ഗോവയിലേക്ക് പോയി ചിലവെന്ന് പറയുന്നത് കയ്യിലാകെ ഉള്ളത് രണ്ടായിരം രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു പക്ഷേ എനിക്ക് ഗോവയിലേക്ക് പോകണമായിരുന്നു അങ്ങനെ ഗോവയിലേക്ക് പോയി ട്രെയിൻ ജനറൽ ടിക്കെറ്റ് എടുത്തു അത് കഴിഞ്ഞ് അതൊരു ഇരുനൂറ്റി അൻപത് രൂപയായിരുന്നു ജനറൽ ടിക്കറ്റിന് അത് കഴിഞ്ഞ് നേരെ ഗോവയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി രാത്രി റൂമെടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് നടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോയി അവിടെ നിന്ന് നേരെ അഞ്ജനാ ബീച്ചിലേക്കും ഭക്ഷണമോക്കെ വളരെ കുറച്ചു മാത്രമേ കഴിച്ചിരുന്നുള്ളു യാത്രകളിൽ പലപ്പോഴും ഭക്ഷണങ്ങൾ കുറയ്ക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് തന്നെ ഭക്ഷണം കുറച്ചു കൊണ്ടുള്ള യാത്രയായിരുന്നു അത് ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരുന്നില്ല പണത്തിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ആ യാത്രകൾ അവിടെ ആരംഭിച്ചു അത് കഴിഞ്ഞ് പല അവസരങ്ങളിലും കിടപ്പ് റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻറ്റുകളിലും ചില ബീച്ചുകളിലും രാത്രികളിൽ ഉറങ്ങി അവിടെ തന്നെ കുറെ പൈസ അവിടെ തന്നെ ലാഭിച്ചു അത് കഴിഞ്ഞ് ഫുഡിൻ്റെ കാര്യത്തിൽ കുറെ ലാഭിച്ചു ഫുഡ് ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചും ഈ റോഡ് സൈഡുകളിലുള്ള മറ്റ് ഭക്ഷണങ്ങളും മറ്റും കഴിച്ച് വിശപ്പ് മാറ്റി അങ്ങനെ ആ യാത്രകൾ അവിടെ തുടർന്നു പിന്നീട് സഞ്ചരിച്ചത് പിന്നീട് ഏറ്റവും കുറഞ്ഞ ഒരു ചിലവ് കയ്യിൽ പൈസ ഇല്ലായിരുന്നു എന്നിട്ട് പോയത് രാജസ്ഥാൻ ജയ്പൂർ ജയ്പൂർ കാണണം എന്ന് വിചാരിച്ച് അങ്ങോട്ടേയ്ക്ക് പോയി അവിടെ രാത്രി താമസിച്ചത് ദർഗയിലായിരുന്നു അജ്മീറിലായിരുന്നു അവിടെ പൈസ വേണ്ട ഭക്ഷണം കിട്ടും പിന്നെന്താണ് വേണ്ടത് ആ യാത്രകൾ അങ്ങനെ തെരുവിലൂടെ നടന്ന് നടന്ന് ആ യാത്രകൾ കഴിഞ്ഞു പിന്നീടുള്ള ചിലവ് കുറഞ്ഞ യാത്ര എന്ന് പറയുന്നത് മൂന്നാറിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു യാത്ര പോയി അത് ഞാൻ തനിച്ചായിരുന്നു എറണാകുളത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കെ എസ് ആർ ടി സിയിലേക്ക് നടന്നു പോയി അത് കഴിഞ്ഞ് രാവിലെ എറണാകുളം കെ എസ് ആർ ടി സിയിൽ നിന്ന് ബസ്സ് കയറി നേരെ മൂന്നാറിലേക്ക് വിട്ടു മൂന്നാറിൽ ആണെങ്കിൽ ഒടുക്കത്ത തണുപ്പും അങ്ങനെ അവിടെ താമസിക്കാൻ പുറത്തൊന്നും താമസിക്കാൻ പറ്റാത്തത് കൊണ്ട് കെ എസ് ആർ ടി സിൻ്റെ തന്നെ ഒരു രാത്രി താമസിക്കാനുള്ള ഒരു പുതിയ സെറ്റ് അപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ റൂം ചോദിച്ചു അവിടെ കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ താമസിച്ചു അത് കഴിഞ്ഞ് ഭക്ഷണവും കാര്യങ്ങളും തണുപ്പായത് കൊണ്ട് തന്നെ അധികം ഭക്ഷണങ്ങൾ വേണ്ടി വന്നില്ല ചോക്ലേയ്റ്റിലും ചെറിയ ചെറിയ മിട്ടായികളിലും പിന്നെ വെള്ളം കുടിച്ചും ആ യാത്രകൾ അങ്ങനെ പോയി പിന്നീട് പോയത് മൂന്നാറിൽ നിന്ന് കെ എസ് ആർ ടി സിയുടെ തന്നെ ഒരു പാക്കേജ് ഉണ്ടായിരുന്നു ഒരു നാന്നൂറ് രൂപയോ മറ്റോ കൊടുത്താൽ ഒരു ദിവസത്തെ ഫുൾ പാക്കേജ് ആ മൂന്നാർ മുഴുവൻ ആ തേയില തോട്ടം മുഴുവൻ ചുറ്റി കാണിച്ച് ഓരോ സ്ഥലത്തും നിർത്തി അങ്ങനെ അങ്ങനെ പോയ ഒരു യാത്രയായിരുന്നു അതും ഏറ്റവും മനോഹരമായ ഒരു യാത്രയായിരുന്നു ബഡ്ജറ്റ് കയ്യിൽ ഏറ്റവും പൈസ ഇല്ലാതിരുന്ന സമയങ്ങളിൽ ഒന്നായിരുന്നു അത് പക്ഷേ ഞാൻ ആ യാത്രകളൊക്കെ മനോഹരമായി മനോഹരമായി ഭംഗിയായി എൻജോയ് ചെയ്തു ആസ്വദിച്ചു ആസ്വദിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ യാത്ര തുടങ്ങി പിന്നീട് ഞാൻ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ സഞ്ചരിച്ചത് തൃശ്ശൂർ സിമ്മിണി ഡാമിൽ പോയി അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തു അവിടെ ഒരു ദിവസം താമസിച്ചു അവിടെ വന്യ ജീവി സങ്കേതത്തിൽ ഒരു ദിവസം താമസിച്ചു അവിടെ കേരളീയത്തിൻ്റെ ഒരു കേരളീയ മാസികയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ കീഴിൽ അവിടെ താമസിച്ചു അവിടുത്തെ വന്യ ഏത് വനം വകുപ്പിൻ്റെയും കൂടിയുള്ള ഭക്ഷണവും താമസവും അതിമനോഹരമായ കാട്ടിലൂടെയുള്ള ട്രെക്കിങ്ങും ആ യാത്രക്ക് ഏറ്റവും കൂടുതൽ ഭംഗി കൂട്ടി ഇതൊക്കെ ആയിരുന്നു എൻ്റെ ഏറ്റവും ചിലവ് കുറഞ്ഞ യാത്ര രീതികൾ സാമ്പത്തിക ചിലവുകൾ ജോലിയില്ലാത്തത് കൊണ്ട് തന്നെ ഹോസ്റ്റലിൻ്റെയും മെസ്സിൻ്റെയും ഫീകളിൽ നിന്നും അത് വീട്ടിൽ നിന്ന് തരുന്ന ആ ഫീകളിൽ നിന്നും പിന്നെ ഉത്സവങ്ങളിൽ നിന്നും മറ്റും ലഭിക്കുന്ന മറ്റു പൈസകളിൽ നിന്നും കളക്ട് ചെയ്ത് വെച്ച് പിന്നെ ഈ ഗ്രാൻറ്റിൻ്റെ സ്കോളർഷിപ്പിൽ നിന്നും കുറച്ച് കുറച്ച് തുകകൾ മാറ്റി വെച്ച് മാറ്റി വെച്ച് യാത്ര ചെയ്തു അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ യാത്രകളായിരുന്നു എല്ലാം ഓരോ കാര്യങ്ങളും പുതുതായി പഠിക്കാൻ സാധിച്ചു ഒറ്റയ്ക്ക് എവിടെയും പോകാനുള്ള ധൈര്യം ലഭിച്ചു പൈസ ഇല്ലെങ്കിലും ജീവിക്കാം എന്ന് മനസിലാക്കി എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം അത് പൈസ ഉണ്ടെങ്കിലും പൈസ ഇല്ലെങ്കിലും എങ്ങനെ വേണമെങ്കിലും ആസ്വദിച്ച് കൊണ്ട് ജീവിക്കാം പണം പറ്റുന്നത്ര പിടിച്ച് പിടിച്ച് കയ്യിൽ പിടിച്ച് പണം ചിലവാക്കാണ്ട് യാത്രകൾ നടത്താൻ പഠിച്ചു അതൊക്കെയായിരുന്നു ഈ യാത്രകളിലൂടെ ഞാൻ സ്വന്തമാക്കിയത് പിന്നെ കുറെ സൗഹൃദങ്ങളും